ഡെൻ്റിസ്റ്റല്ലേ ആ എനിക്ക് കുറച്ചു ദിവസമായിട്ട് പല്ലുവേദനയുണ്ടായിരുന്നു വൈകിട്ടു തന്നെയാണ് ഞാന് മാനന്തവാടിയില്നിന്നാണു വിളിക്കുന്നത് വരുന്നത്

ആ ത്തുണ്ട് ഇല്ല നല്ല വേദനയുണ്ട് വേറെ എവിടെയും കാണിച്ചിട്ടൊന്നുമില്ല

ആ എങ്ങനെയാണ് ബുക്ക് ചെയ്യണോ അതോ അവിടെ വന്നു കണ്ടാല് മതിയോ ബുക്ക് ചെയ്യണോ അതോ അവ്ടെ വന്നിറ്റ് ടിക്കറ്റെടുത്താല് മതിയോ

ടൈമൊക്കെ എപ്പോഴാണ് ആ പുളിപ്പില്ല ആ ഓക്കെ എപ്പോഴായിരിക്കും ടൈം ആ കയറാന് പറ്റുന്ന ടൈം ആ എനിക്ക് അഞ്ച് മണിക്ക് ഓക്കെയാണ്

ആ ഓക്കെ ഓക്കെ

അത് രണ്ടു മൂന്നെണ്ണമുണ്ട്